ഒരു സ്ഥിരമായി ശീലം പൂന്തോട്ട കൃഷിയുടെ കാര്യത്തിൽ അതായത് കാര്യക്രമത്തിലെങ്ങനെയാണ് സമന്വയിപ്പിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു പൂച്ചെടി നട്ടു എന്ന് വെച്ചോ ആ പൂച്ചെടി നടു അതായത് നമ്മൾ നടുന്നതിനു മുന്നേ നമ്മൾ തീരുമാനിക്കണം നമ്മൾ നല്ലോണം നോക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മള് വേറൊരു വീട്ടിൽ നിന്ന് ഇപ്പോൾ അവിടെ നിന്നൊരു ഇപ്പം ഒരു ചെറിയ നമുക്ക് വേണേൽ പറയാം ഒരു റോസാച്ചെടീൻറ്റെ ഒരു കമ്പ് നമ്മള് വെട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ നമ്മളത് വീട്ടിൽ കൊണ്ടുപോയിട്ട് മര്യാദക്കതിനെ പരിപാലിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് കൊണ്ടുവരാൻ പറ്റുകയുള്ളു അല്ലെങ്കിൽ നമുക്കതിനെ ശാപമെന്നു തന്നേ വേണമെങ്കിൽ തന്നെ പറയാം കാരണം എന്താന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ മര്യാദയ്ക്ക് വളർന്നോണ്ടിരിക്കുന്നതാണ് നമ്മള് വെറുതേ വെട്ടി വീട്ടിൽ കൊണ്ടിട്ടിട്ട് പിന്നേ വെള്ളവും നനയ്ക്കുകയില്ല അങ്ങനെ അതിനെ നമ്മൾ ഒരിക്കലും അങ്ങനെ അങ്ങനെയുള്ളവര് ഒരിക്കലും നമ്മള് ചെടികള് കാര്യങ്ങളൊന്നും അതായത് നടാൻ അതായത് നടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് എൻറ്റൊരഭിപ്രായം കരണമെന്നുവെച്ചിട്ടുണ്ടെങ്കില് പിന്നേ ഇങ്ങനേ ചെടിയൊക്കേ നട്ട് അതായത് നമ്മള് നമുക്ക് മെയിനായിട്ടൊരു ശീലം ഉണ്ടാ ഉണ്ടാവണം നമ്മള് ചെടിയൊക്കേ നടുമ്പോൾ അതായത് രാവിലേ അതായത് ചെടി നടുന്നുണ്ടെങ്കില് നമ്മൾ രാവിലേ അതൊന്ന് നോക്കണം നല്ലോണം അതിൻ്റെ മണ്ണെങ്ങനെയാണെന്ന് നോക്കണം അതായത് മണ്ണൊറച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളത് കുത്തിക്കൊടുത്ത് നല്ലോണം വെള്ളം നനച്ച് കൊടുക്കണം പിന്നേ വെള്ളം ഓവർ കുത്തി നനയ്ക്കാൻ പാടില്ല ഇങ്ങനേ സ്പ്രേ പോലെയേ ചെയ്യാൻ പാടുള്ളൂ പിന്നേ അതായത് പൂക്കളൊക്കേ വാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൂ വെട്ടിക്കളയണം എന്നാലേ പുതിയ തഴുപ്പും കാര്യങ്ങളൊക്കേ വരികയുള്ളൂ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മള് നോക്കണം